ഹലോ ടീച്ചർ മെയ് ഐ കം ഇൻ ആ ടീച്ചർ ഞാൻ എയ്റ്റ്ത് ബിയിലെ ആദിത്യൻ്റെ അമ്മ ആണെ ആ ഞാൻ കുട്ടീടെ ലീവിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാ അവന് ഒരു വയ്യാതിരിക്കുകയാണ് ആണ് പനിയും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം വീട്ടിൽ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഒരാഴ്ച്ച മുമ്പേ ലീവ് ആയിരുന്നു ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമോന്ന് ചോദിക്കാന് വന്നതാ ആ അതെ അതെ കുറവ് ഉണ്ട് പക്ഷെ ക്ഷീണം വീട്ടിട്ട് ഇല്ല അപ്പം ഡോക്ടർ ക കമ്പ്ലീറ്റ് റസ്റ്റ് പറഞ്ഞ് ഇരിക്കുവ നമുക്ക് കുട്ടീനെ റിസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വിടാൻ ബുദ്ധിമുട്ട് ആയതോണ്ട് ലീവ് എക്സ്റ്റെൻഡ് അല്ല അക്കാദമിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഒക്കെ ആണേൽ ഞാൻ നോക്കിക്കോളാം ആ ഇത് എന്തായാലും ഒരു മൂന്നാല് ദിവസത്തേക്ക് തരണം ലീവ് തരണം ബാക്കി ഉള്ള പിന്നീട് ഞാന് കുഴപ്പം ഇല്ല എങ്കിൽ വിട്ടോളാം എങ്ങനെ ഇത് പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടോ

ആ ചിലപ്പോൾ ക്ലാസ്സില് നോട്ട്സ് ഒക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാൻ ടീച്ചർക്ക് ബുദ്ധിമുട്ട് ആകുമോ ആ ആ അതെ അല്ലേ എങ്ങനെയാണ് അവന് പഠിത്തം ബാക്കിലോട്ട് ആണോ ആ ആ ഞാൻ ഞാൻ നോട്ട് എഴുതി കൊടുത്തോളാം ഞാൻ പഠിപ്പിച്ച് കൊടുത്തോളാം നാല് ദിവസത്തെ അല്ലേ അപ്പോൾ തരുന്ന അപ്പം ഈ ഇപ്പം ചെയ്തിട്ട് പ്രിൻസിപ്പലിന് കൊടുത്തിട്ട് പോവാല്ലോ അല്ലേ ഓക്കെ മാം താങ്ക്യൂ